ഒറ്റക്ക് ബൈക്കോടിക്കുന്നതിലും എനിക്ക് ഇഷ്ടം കൂട്ടുകാരുടെ കൂടെ കൂടി കറങ്ങാൻ പോകുന്നത് തന്നെയാണ് കാരണം എന്തെന്നാൽ ഒരുപാട് വളരെ വളരെ അധികം സന്തോഷം അതിൽ നിന്ന് ലഭിക്കുന്നു വളരെ അധികം യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് വളരെ അധികം സന്തോഷം അത്തരം യാത്രകളിൽ നിന്ന് ലഭിക്കും കാരണം എന്തും തുറന്നു അറിയാൻ പറ്റുന്നതിൽ കുറച്ച് കൂട്ടുകാർ കൂടെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് കൂടെ ഒരാളും കൂടെ ഉള്ളതായിരിക്കും ഏറ്റവും കംഫർട്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്തെന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ വളരെ അധികം ദുഃഖത്തിൽ ഉള്ളവരാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക ഉള്ളൂ ഒരു ഒരു കമ്പനിക്കാരനാണ് ഒരു കൂട്ടുകാരനാണ് എങ്കിലും കൂടെയുള്ളതാണ് ഏറ്റവും അടിപൊളി അത്രയും നമുക്ക് വൈബ് നൽകുന്ന ഒരാൾ കൂടെ ഉള്ളത് ആണ് അടിപൊളി കാരണം എന്തെന്നാൽ എൻ്റെ ഒരു യാത്ര ഞാൻ ഓർക്കുകയാണ് ഈ സാഹചര്യത്തിൽ കാരണം ഞാൻ വട്ടവട വട്ടവട എന്ന ഗ്രാമം കാണാനായിട്ട് പോകുന്ന എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് എവിടുന്നൊക്കെയോ കൂട്ടുകാർ തേടി വരുന്നത് പോലെയാണ് എനിക്ക് അന്ന് തോന്നിയത് കാരണം യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരെ ലഭിക്കും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ലഭിക്കും നമ്മൾ കാണുന്നവരെ എല്ലാവരും പണ്ട് നമ്മളെ എത്രയോ അടിപൊളിയായിരുന്ന ഒരു കൂട്ടുകാരനെ കണ്ട്മുട്ടിയ ലാഖവത്തോടെ വന്ന് നമ്മളോട് മിണ്ടുന്നു നമ്മളും ആയിട്ടത്രേം അടുത്ത് ഇടപെടുന്നു അത്രം സന്തോഷത്തിലായിരിക്കുന്നു ഇതൊക്കെ വളരെ അധികം സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ വളരെ വളരെ വളരെ വളരെ സന്തോഷം ഇത്തരം യാത്രകളിൽ നിന്ന് ലഭിക്കും ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടി മറ്റുള്ള മറ്റുള്ളവരുടെ കൂടെ പോകുന്ന തന്നെയാണ് ബൈക്കിംഗ് സംഘമായി സംഘങ്ങളുമായി ബന്ധപ്പെടാനും മറ്റു റൈഡർമാരെ കണ്ട് മുട്ടാനുമുള്ള മാർഗം എന്ന് പറയുന്നത് യാത്രകൾ പോകുക എന്ന് തന്നെയാണ് യാത്രകളിലൂടെ കണ്ടെത്തുന്ന കൂട്ടുകാരെ ഒരിക്കലും നമുക്ക് നമ്മുടെ സ്വന്തമല്ല അന്നേരം കാണുന്നു അവർ വേറെ വഴിക്ക് പോകുന്നു എന്നാൽ അത് നൽകുന്ന സന്തോഷോവും അത് നൽകുന്ന ഓർമ്മകളും വളരെ വലുതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത്തരമൊരു ട്രിപ്പ് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ വട്ടവട ട്രിപ്പും കാരണം മറയൂർ ട്രിപ്പും പോയ വഴി മഴയായിരുന്നു എങ്കിൽ പോലും കൂട്ടുകാർ ഫ്രണ്ട്ഷിപ്പ് അത് നമ്മളെ തേടി വരുന്നവയാണ് നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല നമ്മെ തേടി വരുന്നവരുണ്ട് അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി അങ്ങനെ കുറെ റൈഡേഴ്സിനെ എനിക്ക് കിട്ടി ബൈക്കിംഗ് എന്നും സാഹസികം തന്നെയാണ് എന്നാൽ അതിലും സാഹസികമായിരിക്കും നല്ലൊരു കൂട്ടുകാരന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നത് വളരെ അധികം സന്തോഷം അതിൽ നിന്ന് ലഭിക്കും എന്നത് എനിക്ക് ഉറപ്പാണ് ഒട്ടനവധി സന്തോഷം ഒട്ടനവധി ആളുകളെ തേടി വരുവാനും സാധിക്കും നിങ്ങൾക്കും ഒരുപാടധികം ഫ്രണ്ട്ഷിപ്പ് അതിൽ നിന്ന് ലഭിക്കും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും ഒരുപാട് സന്തോഷം അതിൽ അത് എനിക്ക് ഉറപ്പാണ് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കുന്നത് അത്രയും കംഫർട്ടബിളല്ല എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പോലും ഒരാൾ കൂടെയുള്ളതാണ് നല്ലത് അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കി ഒഴിവാക്കാനും ഫ്രണ്ട്ഷിപ്പ് സഹായിക്കും കാരണം എന്തെന്നാൽ രാത്രി കാലങ്ങളിൽ ബൈക്കോടിക്കുമ്പോൾ തന്നെ ആണെങ്കിൽ ഉറക്കം വരാണ്ടിരിക്കാനും കൂട്ടുകാരൻ ഒരാൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മതി ഒരാൾ മതി മതി ഒന്ന് സംസാരിച്ചിരുന്നാൽ തന്നെ നമ്മൾ ഓക്കെയാവും നമ്മുടെ ഉറക്കം പോവും അത് പിന്നെ അവരുടെ വൈബിനൊത്ത് നടന്നോളും ഇത്തരം ചിന്തകളിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷിക്കുവാൻ നല്ല നല്ല ഓർമ്മകൾ അതിൽ നിന്ന് ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഒറ്റക്ക് ട്രിപ്പ് പോകുന്നതിനേക്കാലും എന്തുകൊണ്ടും നല്ലത് ഒറ്റക്ക് ട്രിപ്പ് പോകുന്നതിനെക്കളും എന്തുകൊണ്ടും നല്ലത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഒരുപാട് വളരെ വളരെ വളരെ നല്ല ഓർമ്മകളാണ് അതിൽ നിന്ന് ലഭിക്കുക